കിൻഡിൽ പോലെയുള്ള ഉപകരണങ്ങളൊക്കെ വളരെ ഉപയോഗപ്രദമാണ് സ്ഥിരമായി അല്ലെങ്കിൽ എന്നും വായിക്കുന്ന ആളുകൾക്ക് അങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ വളരെ ഉപയോഗപ്രദമാണ് ഞാൻ അതിൽ അങ്ങനെ വായിച്ചിട്ടില്ല പക്ഷേ എൻ്റെ സുഹൃത്തുക്കളൊക്കെ അങ്ങനെ കിൻഡിൽ ഉപയോഗിച്ചു വായിക്കുന്നവരുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അവരോട് അതിനെ പറ്റി സംസാരിച്ചതിൽ നിന്ന് അറിയാൻ സാധിച്ചത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഉപകരണം ആണെന്നാണ് കാരണം നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് അതും കൊണ്ട് യാത്ര ചെയ്യാം അതുപോലെ തന്നെ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് വായിക്കാം നമ്മൾ ഒരു ഹാർഡ് കോപ്പി നമ്മൾ കൊണ്ടുനടക്കണമെങ്കിൽ നമുക്കൊരു പത്ത് പുസ്തകം നമുക്ക് കൊണ്ടുനടക്കണമെങ്കിൽ ഒരു വലിയ ബാഗ് തന്നെ നമുക്ക് വേണം പക്ഷേ കിൻഡിൽ ആവുമ്പോൾ ഒരു ഒരു ചെറിയ ഉപകരണം കൊണ്ടുതന്നെ നമുക്ക് എത്ര നമുക്ക് എണ്ണിയാലൊടുങ്ങാത്ത അത്ര പുസ്തകങ്ങൾ നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും അപ്പോൾ ഈ ഒരു ചെറിയ ഉപകരണം കൊണ്ട് നമുക്ക് ഒരുപാട് പുസ്തകങ്ങൾ ഒരേ സമയത്ത് വായിക്കാൻ പറ്റും അപ്പോൾ ഒരു പുസ്തകം വായിച്ച് മടുക്കുന്ന സമയത്ത് നമുക്ക് മറ്റൊരു പുസ്തകം വായിക്കണം തോന്നിയാൽ കിൻഡിൽ നമുക്ക് കയ്യിലുണ്ടെങ്കിൽ അത് സാധിക്കും പക്ഷേ നമ്മൾ ഹാർഡ് കോപ്പി ആണ് വായിക്കുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സൗകര്യം നമുക്ക് ലഭിക്കുന്നില്ല പിന്നെ പക്ഷേ ഹാർഡ് കോപ്പി വായിക്കുമ്പോൾ ഉള്ള ഒരു എന്താണ് പറയുക ഓരോ പേജുകൾ മറിക്കുമ്പോഴും ഒരു പേജുകൾ തൊട്ട് അറിഞ്ഞ് വായിക്കുമ്പോഴും അതുപോലെ തന്നെ അതിൽ നമുക്ക് ഇഷ്ടമുള്ള വരികൾ നമ്മളൊരു പേന കൊണ്ടോ പെൻസിൽ കൊണ്ടോ ഒക്കെ വരച്ചിടുമ്പോഴും കിട്ടുന്ന ആ ഒരു പ്രതീതി അല്ലെങ്കിൽ ആ ഒരു സുഖമൊന്നും നമുക്ക് കിൻഡിൽ വായിക്കുമ്പോൾ കിട്ടുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ് പിന്നെ വായിച്ച് നമ്മൾ പല തവണ വായിച്ചുകഴിയുമ്പോൾ പു പുസ്തകത്തിന് വരുന്ന ആ ഒരു വ്യത്യാസങ്ങളുമൊക്കെ അങ്ങനെയൊക്കെ കാണാനും ആസ്വദിക്കാനും ഇഷ്ടപെടുന്നവരാണെങ്കിൽ അവർക്ക് കിൻഡിൽ ഇഷ്ടപ്പെടണം എന്നില്ല പിന്നെ അത്യാവശ്യം കുറച്ച് എന്താണ് പറയുക ചിലവുണ്ട് നമുക്ക് കിൻഡിൽ വാങ്ങാൻ അതിപ്പോൾ പുസ്തകം വാങ്ങാനാണെങ്കിലും നമുക്ക് ചിലവുണ്ട് അപ്പോൾ അത് ഒരു വലിയ ചിലവായി കണക്കാക്കേണ്ട ആവശ്യമില്ല മാത്രമല്ല ഇനി ഹാർഡ് കോപ്പി വാ വാങ്ങുന്നതിനേക്കാളും ഒരുപാട് വില കുറവാണ് കിൻഡിലിൽ ഒരു പുസ്തകം വാങ്ങുക എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ ആമസോണിലൊക്കെ നോക്കിയാൽ തന്നെ അറിയാം കിൻഡിലിൽ ഒരു പുസ്തകം വാങ്ങാനായിട്ട് വളരെ അത് ഒരു ഒരു എണ്ണൂറ് രൂപയുള്ള ഒരു പുസ്തകത്തിന് നൂറ്റമ്പത് രൂപയ്ക്ക് വരെ നമുക്ക് കിൻഡിലിൽ ആ പുസ്തകം കിട്ടും അപ്പോൾ അങ്ങനെ ഒരു ഗുണം നമുക്കുണ്ട് നമുക്ക് തുടക്കത്തിൽ കുറച്ച് പൈസ ചെലവുണ്ടെന്ന് പറഞ്ഞാലും പിന്നീട് നമ്മള് വായിക്കുന്ന പുസ്തകങ്ങളുടെ എണ്ണം അനുസരിച്ചിരിക്കും നമ്മൾക്ക് പിന്നീടുള്ള ഗുണം ഒരുപാട് പുസ്തകം വായിക്കുന്നവരാണെങ്കിൽ സ്ഥിരമായി പുസ്തകം വായിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ കിൻഡിൽ ഉപയോഗിക്കുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു എന്താണ് പറയുക നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് സ്ഥിരമായിട്ട് പുസ്തകം വായിക്കുന്ന ആളുകൾക്ക് അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം വല്ലപ്പോഴും ഒരു പുസ്തകം ഒക്കെ വായിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യം ആവശ്യകത ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ലൈബ്രറിയിൽ നിന്നൊക്കെ കിട്ടുന്ന പുസ്തകങ്ങൾ വായിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ പുസ്തകം ഒക്കെ സൂക്ഷിച്ച് വയ്ക്കുന്ന കളക്റ്റ് ചെയ്യുന്ന സ്വഭാവം ഉള്ളവർക്ക് ഹാർഡ് കോപ്പികൾ വാങ്ങുന്നതിൽ ആയിരിക്കും കൂടുതൽ സന്തോഷം